എൻ്റെ നാട്ടിൽ ഒരു ക്ലബുണ്ട് വികാസ് ആർട്ട്സ് ആൻഡ് സ്പോർട്ട്സ് ക്ലബ് എന്നാണ് അതിൻ്റെ പേര് ആ ക്ലബിൽ എല്ലാ വർഷവും മാരത്തോൺ ഉണ്ടാവാറുണ്ട് ഞാൻ അതിൽ വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ് ഞാനും എൻ്റെ എൻ്റെ വീട്ടിലുള്ളവരും എല്ലാവരും തന്നെ അതിൽ നല്ല രീതീയിൽ പങ്കെടുക്കാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കായികം കായികമായിട്ടുള്ള ഒരുപാട് പരിപാടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടാണ് എൻ്റേത് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കുട്ടികളുണ്ട് അവർകൊക്കെ വളരെ അധികം പ്രോത്സാഹനമായിട്ട് നിൽക്കുന്നത് എൻ്റെ നാട്ടിലെ ഈ ക്ലബ് തന്നെയാണ് ഈ ക്ലബ് പങ്കെടുപ്പിക്കാൻ അതായത് ക്ലബ് ഒരുക്കുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാവരും നല്ല രീതിയിൽ പ്രോത്സാഹനമായാലും പിന്നെ പിന്തുണയായാലും പിന്നെ സംഭാവനയാണെങ്കിലും എല്ലാ ഇതും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു നാടാണ് ഞങ്ങളുടേത് അത് എൻ്റെ കുട്ടി അവൻ്റെ കുട്ടി എന്നൊരു പ്രായ ഒരു ഭേദമില്ലാതെ എല്ലാ കുട്ടികളേയും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നല്ല ഒരു പ്രവണതയാണ് എനിക്ക് ഈ നാട്ടിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ അച്ഛനും വളരെ അധികം നല്ല രീതിയിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആളാണ് കോളേജ് തലത്തിലും ഞാൻ ഒരുപാട് കായികമായിട്ടുള്ള ഒരുപാട് പരിപാടികൾ പങ്കെടുക്കുന്നത് എനിക്ക് അന്ന് മുതൽ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എൻ്റെ കോളേജിലെ എല്ലാ റണ്ണിംഗ് കോമ്പറ്റിഷൻസിലും ഞാൻ പങ്കെടുക്കാറുണ്ട്